പണ്ടത്തെ നൃത്തം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വികാരങ്ങളും മാനസികാവസ്ഥകളും ഇതൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു രീതിയായിരുന്നു എന്നാൽ ഇപ്പോൾ നേരെ തിരിഞ്ഞാണ് ഇപ്പോൾ ശൈലികൾ ഓ പ്രെ പുതിയ ശൈലികളൊക്കെ എ വന്നു ആ അതിനെയൊക്കെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോഴത്തെ നൃത്തം ഉള്ളത് അപ്പോൾ അതും ഇതും തമ്മിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫറെൻസ് ഉണ്ട് ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂടൊക്കെ ചെയ്ഞ്ച് ആകുന്ന അതിനൊക്കെ അനുസരിച്ച് ആ ഒരു ഭാവവും അതെല്ലാം വരുന്ന ഒരിതായിരുന്നു പണ്ടത്തെ ഡാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്നാൽ ഇപ്പോൾ പുതിയ പുതിയ രീതികൾ പുതിയ പുതിയ ഡാൻസ് ഒക്കെ ഇറങ്ങിയ എന്നാൽ ഒരിതിലാണ് ഇപ്പത്തെ നൃത്തം പോകുന്നത് അപ്പോൾ അവര് തമ്മില് രണ്ടും തമ്മില് നല്ല വ്യത്യാസമുണ്ട്